ഹലോ അതെയല്ലോ ആരാ വിളിക്കുന്നത് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ സാറെന്ത് സാറേ എന്നാ എന്നാ എന്നാ വിശേഷം ഉള്ളത് എന്താ വിശേഷം

ആ ആ ഓക്കെ ഓക്കെ ആ അതെ അതെ അതെ അതെ അതെ സാറൊക്ക ഒത്തിരി നാളായില്ലല്ലോ അത് ഒന്ന് രണ്ട് വർഷം അല്ലേ ആയുള്ളൂ ആ മ് ഓ

ഇല്ല പിന്നെ നമുക്ക് ഉണ്ടായ അത് കുഴപ്പം ഇല്ല സാറേ നമുക്ക് പരമാവധി നമുക്ക് സഹകരിക്കാവുന്നതാണ് കേട്ടോ ഇവിടുന്ന് എടുത്തതല്ലേ നമ്മുടെ കടയിൽനിന്ന് എടുത്തതല്ലേ അവിടെ നമുക്കൊരു ഇത് സാർന് വലിയ നഷ്ടം വരാത്ത രീതിയിൽ നമുക്കത് കൈകാര്യം ചെയ്ത് തന്നോളാം കേട്ടോ ഇപ്പോഴാണെങ്കിൽ ആ കുറെ അധിക സെലക്ഷൻസ് വന്നിട്ടുണ്ട് കുറെ അധികം സെലക്ഷൻസ് ഉണ്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഉണ്ടുണ്ടുണ്ടുണ്ട്

ഹാൾമാർക്കുള്ള നൈൻ വൺ സിക്സിൽ ഹാൾമാർക്കുള്ളതാണ് ഉള്ളതാണ് ആ അതെ അതെ അതെ ആ ആ ഉവ്വുവ്വ് ആ ആ ഉവ്വുവ്വുവ്വ് ആ വില കൂടെ ഇച്ചിരികൂടെ കൂടാനാ സാധ്യത പതിയായിട്ട് നിൽക്കുന്നില്ല ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ പോലും ആ സ്റ്റഡിയായിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യത കുറവാ എന്നിട്ടീ സീസണങ്ങോട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലൊക്കെ മാറ്റങ്ങൾ പ്രതീഷിച്ചിട്ട് കാര്യം ഉള്ളൂ

ആ വിഷൂൻ്റെ ഓഫറുണ്ട് ഓഫറുണ്ടത് സാറ് നേരിട്ട് വരുമ്പോൾ നമുക്ക് പറയാം കേട്ടോ ആ പണിക്കൂലി എന്താത്താ പണിക്കൂലി കുറവ് ചെയ്ത് തരാം അത്യാവശ്യം എല്ലാ രീതിയിലും മാക്സിമം സഹകരിച്ചോളാം കേട്ടോ സാറ് നമ്മുടെ കസ്റ്റമറല്ലേ ഓക്കെ ഓക്കെ വേറെ വേറെ പർച്ചേസുണ്ടോ ആ വേറെ പർച്ചേസുണ്ടോ ഓക്കെ ഓക്കെ മ് ആ ഉവ്വ് ഓക്കെ ഓക്കെ പുതിയ മോഡല്കൾ ധാരാളം വന്നിട്ടുണ്ട് പുതിയ മോഡല്കളെ പുതിയ ഡിസൈനൊക്ക വന്നിട്ടുണ്ട് നല്ല ഡിസൈൻ വന്നിട്ടുണ്ട് മ് ഇപ്പം എല്ലാം മിഷിൻ വർക്കല്ലേ സാറേ മിഷിൻ വർക്കെല്ലാം മിഷിൻ വർക്കാണ് സിംഗപ്പൂർ സിംഗപ്പൂർ കളക്ഷൻസ് ഒക്കെയുണ്ട് ഇഷ്ടംപോലെ മ് നല്ല ഡിസൈനുണ്ട് മ് ഡയമണ്ട് കളക്ഷൻസ് നമുക്കുണ്ട് പക്ഷേ ഡയമണ്ട് കളക്ഷൻ ഞാൻ സാർനോട് എടുക്കാൻ പറയില്ല സാർനെന്നാന്ന് വെച്ചാൽ ഫോർ സെയ്ൽ വാല്യൂൻ്റെ പ്രശ്നം ഉണ്ടല്ലോ ഫോർ സെയിൽ വാല്യൂ ചെന്ന് കഴിയ്മ്പത്തേ ഉള്ള കുറെ വിഷയങ്ങളൊക്കെയുണ്ട് നമ്മളിപ്പം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഈ സാധനങ്ങളൊക്കെ എന്തെങ്കിലും ചേഞ്ചിനൊക്കെയായിട്ട് ചെല്ലുകയുള്ളൂ അപ്പോഴത്തേക്കും ഇതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണെന്ന് നമുക്കുറപ്പ് പറയാൻ പറ്റില്ല ആ അതിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല മ് ഓക്കെ ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ സാറ് എന്നത്തേക്കാ ഇറങ്ങുന്നത് ഓക്കെ ഓക്കെ ഓക്കെ അത് ആ ആ ആ അതെ പിന്നെ വേറെന്നാ സാറെ വിശേഷം ഉള്ളത്

ആ ഇട്ട് തരാം ഇട്ട് തരാം അങ്ങനെ സാധാരണ ഇട്ട് കൊടുക്കാറില്ല ആർക്കും കസ്റ്റമേഴ്സിനങ്ങനെ ഇട്ട് കൊടുക്കില്ല കാരണം ഇട്ട് ഇട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആയ കലക്ഷനുമായിട്ട് വേറെ ജ്വല്ലറീക്കൂടെ പോവേ ഉണ്ടോ എന്ന് ചോദിച്ച് വിലയൊക്കെ തിരക്കി പോവും അപ്പം ഞാൻ സാറായതുകൊണ്ടാ തുറന്നങ്ങ് പറഞ്ഞത് നമുക്കത് അങ്ങനെ ഇട്ട് തരാനും ബുദ്ധിമുട്ടുണ്ടേ കേട്ടോ ആ ആ അതുകൊണ്ട് സാറ് നേരിട്ട് വാ സാറ് നേരിട്ട് വന്ന് കഴിയുമ്പം നമുക്ക് കൈകാര്യം ചെയ്യാം കാരണം ഇത് വാട്സപ്പിലിട്ട് തന്ന കളക്ഷൻസ് കംപ്ലീറ്റ് വാട്സപ്പിലിട്ട് തന്നാൽ അവരുടെ കയ്യിലില്ലാത്ത കളക്ഷൻസ് കൊണ്ട് അവരത് കൊണ്ടുവന്ന് വയ്ക്കും വേറെ കടയിൽ കൊണ്ട് കാണിച്ച് കഴിഞ്ഞാലെ ആ മതി മതി മതി മതി അത് മതി ഓക്കെ ഓക്കെ എന്നാൽ ആയിക്കോട്ടെ ഒകെ